ദിവ്യാ ചന്ദ്രൻ എബിൻ എബ്രഹാം അബിൻ പി ആർ റോസ്മേരി തോമസ് അനന്ദു മനോജ് ഫാത്തിമ അബ്ദുൽ സലാം അഞ്ജലി എൻ എ ഷാജൻ അഖിൽ ചന്ദ്രൻ സുജിമൽ ജോസഫ് അമ്മു രാജൻ